ആദിവാസി തെയ്യം ആണ് നമ്മുടെ പ്രദേശത്തെ പ്രാഥമിക കലകളിൽ പെട്ടത് ഇത് ഉടുക്കു മുട്ടി സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് കളിക്കുന്ന കളിക്കുന്നു ഇതിന് നമ്മുടെ നാട്ടിൽ പ്രോത്സാഹിപ്പിക്കുന്ന കലാസൂചകമാണ് കലാരൂപമാണ് ആണിത് ഇതിനു വേണ്ടി സർക്കാർ ചില പദ്ധതികളും സബ്സിഡികളും നൽകി വരുന്നു ആദിവാസികൾക്ക് ഗോത്ര സമുദായത്തിൻ്റേതായ പല കലാരൂപങ്ങളും സാമ്പത്തിക സഹായങ്ങളും സർക്കാരവർക്ക് നൽകുന്നുണ്ട്

ഇവയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്